പാലക്കാട് ജില്ലയിലെ പ്രാദേശിക ഭരണകൂടം എന്ന് പറയുമ്പോൾ പഞ്ചായത്തുകളുണ്ട് രാഷ്ട്രീയ തലങ്ങൾ ഒക്കെ പറയാണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം എല്ലാ രാഷ്ടിയക്കാരുമുണ്ട് ഇടത് മുന്നണി വലത് മുന്നണി അതുപോലെ തന്നെ ബിജെപിക്കാർ അങ്ങനെ പലതരം രഷ്ട്രീയക്കാർ ഉള്ളതാണ് പാലക്കാട് ജില്ല എന്ന് പറയുമ്പോ ഇവിടെത്തെ പാലക്കാട് എംഎൽഎ ആയവരെ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇവിടുന്ന് പാർലമെന്റ് അംഗം ആയ ആളാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം അപ്പോ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് വിക്ടോറിയ കോളേജിൽ അവിടുത്തെ കോളേജ് ബസ് സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹമാണ് അതേപോലെത്തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പാലക്കാട് ഉള്ള അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ വിക്ടോറിയ കോളേജ് ഹിസ്റ്റോറിക് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടിൽ അല്ലെങ്കിൽ പിൻബലം ഉള്ളതുകൊണ്ടാണ് ഹി വിക്ടോറിയ കോളേജുകാർക്ക് ആ ഒരു ഹിസ്റ്റോറിക് മ്യൂസിയം ലഭിച്ചത്